എനിക്ക് ഈ അടുത്തിടെ ആയിട്ട് ടി വി ഷോകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഫ്ലവേർസിലെ ടോപ് സിംഗർ ആണ് എന്തുകൊണ്ടെന്നാൽ അത് കുട്ടികളുടെ പരിപാടി ആയതു കൊണ്ടു തന്നെയാണ് കാരണം അവരുടെ കഴിവുകൾ കാണുമ്പോൾ നമുക്ക് തന്നെയൊരു ആനന്ദവും അസാധ്യമായിരിക്കുന്നു എന്ന് തോന്നിപ്പോകുന്ന തരത്തിലാണ് ഓരോ മക്കളുടെയും കഴിവുകൾ അതിൽ കാണുന്നത് അതുപോലെ തന്നെ അവരുടെ നിഷ്കളങ്കമായ സംസാരവും കൊഞ്ചലും സ എല്ലാം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിന് തന്നെ ഒരു ആയാസകരമാണ് നമ്മളെന്ത് എന്ത് തരം വിഷമത്തിൽ നിൽക്കുന്ന സമയത്താണെങ്കിൽ കൂടിയും ഫ്ലവേർസ് ടോപ് സിംഗർ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിന് ഒരുപാട് സന്തോഷവും സമാധാനവും നമുക്ക് കിട്ടുന്നത് പോലെ തോന്നും അപ്പോൾ അതുപോലെ തന്നെ കുട്ടികളുടെ പാരെൻ്റ്സ് ആണെങ്കിൽക്കൂടി വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് ആ കുട്ടികളെ അതിനു ഗ്രൂം ചെയ്ത് അവരെ വലിയ വലിയ പാട്ടുകളൊക്കെ പാടിപ്പിച്ച് അവർ അവരുടെ കഴിവുകളൊക്കെ അവർ പുറത്തെടുത്ത് ഭാവിയിലേക്ക് തന്നെ അവർക്കൊരു ചുവടു വെയ്പ്പ് കൂടിയാണ് ഈയൊരു പരിപാടി എന്തുകൊണ്ടും ഫ്ലവേർസ് ടോപ് സിംഗർ നല്ലൊരു പരിപാടിയായി എനിക്ക് തോന്നിയിട്ടുണ്ട്